കോഴിയിറച്ചി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പല രീതിയിലാണ് അതിന് ആദ്യമായി നമ്മൾ കോഴിയെ കൊല്ലുക കോഴിയെ കൊല്ലുന്നതിനു തന്നെ രണ്ട് മെത്തേഡുണ്ട് അതായത് നമുക്കതിന്റെ പപ്പും പൂടയും പറിച്ചു മാറ്റാം അതുകൂടാതെ തന്നെ ചൂട് വെള്ളത്തില് ഇട്ടു ഉലിഞ്ഞു അതിന്റെ തൊലി ഉരിഞ്ഞെടുക്കാം ഇങ്ങനെ രണ്ട് രീതിയില് നമ്മള്ക്ക് മാനുവലായിട്ട് ചെയ്യുവാന് സാധിക്കും ഇത് കട്ട് ചെയ്ത് എടുക്കന്നത് വഴി നമ്മൾക്ക് നമ്മുടെ ഉല്പ്പന്നത്തിനനുസരിച്ച് നമ്മളുണ്ടാക്കുന്ന വിഭവത്തിന് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ സൈസും കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടതെങ്കില് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞല്ലാത്ത രീതിയിൽ വലിയ വലിപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് ഞാന് പ്രോസസ്സ് ചെയ്യുന്നു അത് ആദ്യമായിട്ട് വേവിക്കുകയും അത് വേവിക്കുന്നതിലൂടെ ഉടയുകയും അങ്ങനെ പലരീതിയിലും നമ്മൾ അത് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ വേവിച്ചെടുക്കും അതല്ലാതെ തന്നെ കോഴി കൊണ്ടിട്ട് നമുക്ക് ഒത്തിരിയേറെ വിഭവങ്ങള് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കോഴിയിറച്ചി പ്രൊസസ്സ് ചെയ്തെടുക്കുന്നതിന്റെ രീതിക്കനുസരിച്ച് അതായത് കുഞ്ഞുകുഞ്ഞു കഷണങ്ങളാക്കി കൊത്തിയരിഞ്ഞിട്ടാണ് നമ്മൾ ഷവര്മ്മ എന്നു പറയുന്ന വിഭാഗം ഉണ്ടാക്കി കഴിക്കുന്നത് അതേപോലെതന്നെ നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കണം അതിന് നമ്മൾ ദശ എല്ലില്ലാത്ത ഭാഗം നോക്കി ദശയാണ് നമ്മൾ ചെത്തിയെടുക്കുന്നത് ഇങ്ങനെ ദശ ചെത്തിയെടുത്തിട്ടാണ് നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കുന്നത് കോഴി കൊണ്ട് തന്നെ ഒത്തിരിയേറെ വിഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അതിന് പ്രൊസസ്സിങ്ങ് എന്നു പറയുന്നത് വളരെ നല്ലതാണ് കോഴി കോഴിയെ വളര്ത്തി വീട്ടിലുണ്ടാക്കി അതിനെ കൊന്ന് കൊടുത്ത് ഇറച്ചിക്ക് വിഭവങ്ങള് ഉണ്ടാക്കി കൊടുക്കുന്നതും ഇറച്ചിയായിട്ട് കൊടുക്കുന്നതിനും ഒത്തിരിയേറെ വരുമാന മാര്ഗ്ഗങ്ങൾ ആളുകള് ചെയ്തു വരുമാന മാര്ഗ്ഗമാക്കി ഇന്ന് മാറ്റിയിട്ടുണ്ട് അതുവഴിതന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒത്തിരിയേറെ വീട്ടമ്മമാർ തന്നെയുണ്ട് ഇപ്പം കോഴിയിറച്ചിയുടെ പ്രൊസസ്സ് മാത്രം ചെയ്യുന്നവരുമുണ്ട് കോഴിയെ കൊണ്ട് കോഴി വരവ് കോഴിയെ കൊണ്ടുവന്നിട്ട് കോഴിയെ വെട്ടി കഷണങ്ങളാക്കി അവർ പറയുന്നതനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് അവർ ആഹാരം കൊടുത്ത് അതിനെ വളർത്തുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഒരോരുത്തർക്ക് ആവശ്യമൂല്യം അനുസരിച്ചിട്ട് നമ്മൾ മൃഗങ്ങളെയൊക്കെ അറക്കത്തില്ലേ അതുപോലെ തന്നെ കോഴിയെ മാത്രം കട്ട് ചെയ്തു വിഭാഗം കൊടുത്തിട്ട് അത് ഒരു വരുമാനമാക്കി മാറ്റുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് നമ്മുടെ സമൂഹത്തില് ഉണ്ട് കോഴിയിറച്ചി ഉല്പ്പന്നങ്ങൾ തന്നെ എല്ലാ ഒരുമാതിരിയുള്ള എല്ലാ ജനങ്ങള്ക്കും എല്ലാ നാടുകളില് ഉള്ളവര്ക്കും വളരെയധികം ഇഷ്ടമുള്ളതാണ് ബീഫിനേക്കാളുപരി കോഴിയിറച്ചിയാണ് ഏറ്റവും കൂടുതല് എല്ലാവര്ക്കും ഉള്ളു കുഞ്ഞുങ്ങള്ക്ക് പോലും നമുക്കിത് കൊടുക്കുവാനായിട്ട് സാധിക്കും നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിയാണ് ഈ കോഴിയിറച്ചി നമ്മള് പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചിട്ടിരിക്കും നമ്മൾ നല്ല രീതിയിൽ അത് അതിന്റെ പപ്പും അതിന്റെ കുടലും അതിന്റേതായ കാര്യങ്ങളും പാര്ട്ട്സും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നതിനെ ഡിപ്പൻ്റ് ചെയ്യുന്നതിനെ അനുസരിച്ചിട്ടായിരിക്കും കോഴിയിറച്ചി നല്ലതാക്കുന്നത് തൊലിയുരിഞ്ഞെടുത്ത് ചില ആളുകള്ക്ക് തൊലിയുരിഞ്ഞ് എടുത്തിട്ടായിരിക്കും കോഴി പ്രോസെസ്സ് ചെയ്യുന്നത് ഇഷ്ടമുള്ളത് അപ്പം ആ രീതിയില് ചെയ്യുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്